കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സാംസ്ക്കാരിക ഉത്സവമാണ് പെരുന്നാൾ അതെന്ന് വച്ചാൽ ഈദുൽ ഫിത്തർ മേദുൽ അഫ്ലിയുമൊക്കെ ഒക്കെ കോഴിക്കോട് ജില്ലയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടും അതല്ലാതെ കോഴിക്കോട് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തനതായ ഓണം വിഷു അങ്ങനത്തെ എല്ലാം കോഴിക്കോട് ആഘോഷിക്കും അതിൽ വിഷുവിൽ അതിൽ വേറൊരു ഇതെന്നു വച്ചാൽ കോഴിക്കോട് ചില ക്ഷേത്രങ്ങളിൽ ശിവരാത്രിക്ക് ഭയങ്കരമായിട്ടുള്ള ഉത്സവങ്ങൾ കാണപ്പെടാൻ സാധ്യതയുണ്ട് അത് കോഴിക്കോടിന്റെ പുറത്ത് വേറെ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിൽ ഉത്സവാഘോഷം പിന്നെ പല ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്നു തിറ മഹോത്സവം പിന്നെ എല്ലാ അധിക ക്ഷേത്രത്തിലും കാണപ്പെടുന്ന നമ്മുടെ വാർഷികം ക്ഷേത്രത്തിൻ്റെ വർഷാഘോഷം പിന്നെ പ്രതിഷ്ഠാദിനം അങ്ങനെയൊക്കെ കോഴിക്കോട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളു അതേപോലെതന്നെ കോഴിക്കോട് കാണപ്പെടുന്ന ഒരു സാധനമാണ് ഡിസംബറിൽ കാണപ്പെടുന്ന അയ്യപ്പൻ വിളക്ക് അതിപ്പോൾ കേരളത്തിന്റെ കോഴിക്കോടിന് പുറത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല അത് അയ്യപ്പനു വേണ്ടി മാത്രം ഡിസംബർ മണ്ഡലമാസത്തിൽ അയ്യപ്പനു വേണ്ടി മാത്രം ഉള്ളൊരു ഘോഷയാത്ര അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് അയ്യപ്പൻ വിളക്ക്